ആ ചേച്ചി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത് ആയിരുന്നു എൻ്റെ സ്ഥലം പാമ്പാടിയാണ് അപ്പം എനിക്ക് ഇവിടെ നന്നായിട്ട് സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനായിരുന്നു ആ ആ ആ കിട്ടും അല്ലേ കിട്ടും അല്ലേ ആ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ അവിടെ വന്നാൽ ഞങ്ങൾക്ക് അവിടെ ഹൗസ് ബോട്ട് അവൈലബിൾ ആയിരിക്കും അല്ലേ അതോ ഞങ്ങൾ നേരത്തെ ബുക്കിംഗ് നടത്തണോ ആണല്ലേ ആ ഓ ആ ശരി ശരി ആ ശരി ആ

ഉണ്ട് അല്ലേ ആ ആ ആ ആ അല്ല അപ്പം എത്ര മണിക്കാണ് അല്ല എത്ര മണിക്കാണ് നമ്മൾ ബോട്ടിംഗിന് എത്തേണ്ടത് വരും അല്ലേ ആ ആ ശരി ആ ആ കാണുന്നത് അല്ലേ ഉണ്ട് അല്ലേ ആ ഉണ്ട് അല്ലേ ആ ആ ശരിക്കും ഏകദേശം ആ ഏകദേശം എത്ര രൂപ ഒക്കെ ആവുമായിരിക്കും നമ്മൾക്ക് ഒരു ഹൗസ് ബോട്ട് ഒരു ഒരു ദിവസത്തേക്ക് നമ്മൾ എടുക്കുക ആണെങ്കിൽ ആവും അല്ലേ ആ അതെ അല്ലേ ആ ആ ആ അല്ലേ അപ്പോൾ ആ ഞങ്ങൾ ഈ ആഴ്ച വീക്കെൻഡിൽ ഒരു ചെറിയ ടൂർ എന്ന രീതിയിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ആ അതാണ് ആ ആ എന്നാൽ ശരി ആ ശരി ശരി ചേച്ചി ഓക്കെ ആ ആ